അതെ ഇതാരാണ് സംസാരിക്കുന്നത് ആ ആ അവിടെന്ന് ആ ഇവിടെ ആ ഏത് ഇവിടുന്ന് എന്ത് ആയാലും ഇത് മാറ്റിയെടുക്കാന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഞങ്ങളെ സമീപിച്ചാല് മതി ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേറൊരു പാദസരം തരുന്നതായിരിക്കും ആ ഇനി അത് വേറൊരു ജോഡി നിങ്ങൾക്ക് തരാന് ഞങ്ങൾക്ക് കഴിയും നിങ്ങളത് പാദസരമായിട്ട് ഞങ്ങളെ സമീപിച്ചാല് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാദസരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ എന്നാലും തിരഞ്ഞെടുക്കുന്ന സമയത്ത് വില വ്യത്യാസങ്ങൾ വരാനും സാധ്യതകളുണ്ട് പ്ലേയിനാ പ്ലേയിനായിട്ടുള്ള പാദസരങ്ങള്ക്ക് നമ്മൾ ഇവിടെ എല്ലാവര്ക്കും അഫോഡാബിളായിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് എന്നാലും കല്ലൊക്കെ വെച്ച് വരുന്നതാകുമ്പോൾ കുറച്ചൂടെ കാശ് കൂടുതലായിരിക്കും അത് നിങ്ങൾ നിങ്ങള്ക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത് തരും പക്ഷേ കല്ല് വെച്ചതിനൊക്കെ കുറച്ചൂടെ പൈസയാകും അപ്പം അത് അതിന് അനുസരിച്ച് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അതിന് അനുസരിച്ചുള്ള പാദസരം ഞങ്ങള് തരുന്നതായിരിക്കും ആ എക്സ്ചേഞ്ച് ഓഫറെക്കെ ഇവിടെ ലഭ്യമാണ് നിങ്ങൾ നഷ്ടപ്പെട്ട പാ പോയ പാദസരം നഷ്ടപ്പെട്ടതിന്റെ ബാക്കിയുള്ള പാദസരവും ബില്ലുമായിട്ടും ഞങ്ങളുടെ മേടിച്ചാൽ ഞങ്ങൾ അതിന് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് തരം ഉള്ള എന്ത് ഡിസൈനൊള്ള പാദസരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ആ ആ സ്വര്ണ്ണത്തിന്റെ അളവിൽ കാടെഴ്ത്തിയാലും കുറച്ചൂടെ നിങ്ങൾക്ക് എളുപ്പം ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇതേ റേറ്റ് വരുന്ന പാദസരമാണോ അടുത്ത് നിങ്ങൾക്ക് തരേണ്ടത് അറിയാനും പിന്നെ ഇവിടെ ഗ്രാമിന് വരുന്നത് ആറായിരം രൂപയാണ് നമ്മുടെ തുടക്കം ഗ്രാമിന് വരുന്നത് നിങ്ങൾ ഇപ്പം ഓഫറൊള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിലും കുറച്ച് തരാന് പറ്റും ആ ഇവിടെ പാദസരം എല്ലാം ഞങ്ങൾ പണിത് കൊടുക്കുന്നത് പണിക്കൂലി മാത്രം പണിക്കൂലി ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നതിൽ വാങ്ങിക്കാറില്ല നിങ്ങൾക്ക് അത് കുറച്ചൂടെ നിങ്ങൾ എളുപ്പമായിരിക്കും ആ ഓക്കെ